നല്ലപോലെ കഴുകി വൃത്തിയാക്കി ബൈക്ക് കൊണ്ട് നടക്കാറുണ്ട് ബൈക്കിന് എല്ലാ പണികളും ഇടയ്ക്കിടയ്ക്ക് സർവീസ് ചെയ്യാറുണ്ട് ഒരുപാട് ദൂരം ഓടുമ്പോൾ ബൈക്കിന് അതിൻ്റെ ഐസ് കുറഞ്ഞഞ് വരുന്നതായത് കൊണ്ട് എനിക്കെപ്പോഴും വർഷോപ്പുകളിൽ കൊടുത്ത് നന്നാക്കി വാങ്ങാറുണ്ട് എഞ്ജിൻ മാറ്റി ഫിറ്റ് ചെയ്യാറുണ്ട് എല്ലാ സർവീസുകളും ചെയ്യാറുണ്ട് ബൈക്കിൻ്റെ എന്തെങ്കിലും സാധനം നശിച്ചു പോയാൽ അത് നല്ലപോലെ മെയിൻറ്ററെയിൻ ചെയ്ത് കൊണ്ടുപോകാറുണ്ട് ബൈക്ക് ദീർഘദൂര യാത്രകളിൽ ഒരു ബ്ലോക്കിലോ ഒക്കെ പെടുകയാണെങ്കിൽ ബൈക്കാണെങ്കിൽ സമയം കളയാതെ മുന്നോട്ട് കയറിപ്പോകാൻ സാധിക്കും പക്ഷേ കാറോ മറ്റുള്ള വലിയ വാഹനങ്ങളൊന്നും അങ്ങനെ കയറി പോകാനെ കയറ്റി വിടാനോ സാധിക്കില്ല ബൈക്ക് എങ്ങനെ വേണമെങ്കിലും കയറി മുന്നോട്ട് കൊണ്ടുപോയി നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലെത്തിച്ചേരാൻ സാധിക്കും ഒരുപാട് പെട്രോള് ചെലവാക്കേണ്ട ആവശ്യമില്ല പിന്നെ വെയിൽ കൊള്ളണം മഴ കൊള്ളണം അങ്ങനെ ചില ബുദ്ധിമുട്ടുകൾ ഒഴിച്ചാൽ ബൈക്കിൽ യാത്ര ചെയ്യാൻ നല്ല സുഖമാണ് നല്ല ബൈക്കാണെങ്കിൽ പ്രത്യേകിച്ചും ബൈക്കുകൾ ദൂരയാത്ര കൊണ്ടുപോകുമ്പോൾ റോഡിലെ റോഡ് മോശമാണെങ്കിൽ ബൈക്ക് ബൈക്കിന് പണി കൂടി കൂടി വരും ബൈക്ക് നല്ലതായിട്ട് നിൽക്കണമെങ്കിൽ എന്ന് വെച്ചാൽ നല്ല റോഡുകളെ കൂടെ യാത്രയ്ക്ക് കൊണ്ടുപോയാലേ കൊള്ളുള്ളൂ അഴുക്ക് റോഡിൽ കൂടെ ഉപയോഗിക്കുമ്പോൾ ബൈക്കിന് പെട്ടെന്ന് കേടുപാടുകൾ സംഭവിച്ച് ബൈക്ക് എപ്പോഴും പണിക്ക് കയറ്റേണ്ട അവസ്ഥ വന്നെന്നും വരാം ബൈക്കെപ്പോഴും ചെറിയ ചെറിയ ദൂരം ഓടിക്കുകയാണെങ്കിൽ സ്ഥിരമായിട്ട് ചെറിയ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനും സാധിക്കും ബൈക്ക് വൺ ഒറ്റയ്ക്ക് റൈഡ് ചെയ്യുന്ന് പോകുന്നവർക്ക് ബൈക്കാണ് ഏറ്റവും അനുയോജ്യം വേറെ വണ്ടികളൊക്കെ കൊണ്ടുപോവുന്നതിലും ലാഭകരവും സന്തോഷകരവും ഫീല് തോന്നുന്നത് ബൈക്കിനാണ് വേറെ വണ്ടിയിലൊക്കെ പോയാൽ ഒരുപാട് ആൾക്കാരുമായിട്ട് പോയാൽ മാത്രമേ അത് ഫീല് കിട്ടത്തുള്ളൂ പിന്നെ എവിടെയെങ്കിലും ഒന്ന് താമസിക്കണമെങ്കിൽ ബൈക്കേൽ യാത്ര ചെയ്തുകൊണ്ട് പറ്റത്തില്ല നമ്മൾ പ്രത്യേകം മുറിയൊക്കെ എടുത്തോ അല്ലെങ്കിൽ ഏതൊരു വെയ്റ്റിംങ് ഷഡ്ഡില് പോയിരുന്നോ വിശ്രമിക്കാൻ കഴിയൂ ബൈക്കീ ഇരുന്നുകൊണ്ട് വിശ്രമിക്കാനൊന്നും കഴിയത്തില്ല ബൈക്കീ കൊണ്ടുപോവുകയാണെ പെട്ടെന്ന് പെട്ടെന്ന് ഓരോ സ്ഥലങ്ങളിലും എത്തും ബ്ലോക്കുള്ള ഏരിയകളിൽനിന്നൊക്കെ വിട്ടു നിൽക്കാനും പെട്ടെന്ന് നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ചുള്ള ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനും സാധിക്കും ബൈക്കേ പോകുന്നതാണ് ഏറ്റവും ആ അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചോ ഒക്കെ കാറ്റാടി കൊണ്ടും പിന്നെ വെയിൽ കൊള്ളണം എന്നുള്ളൊരു മഴ കൊള്ളണം എന്നുള്ള ബുദ്ധിമുട്ട് ഒഴിച്ചാൽ ഏറ്റവും നല്ലത് ബൈക്ക് യാത്രയാണ്